കലയെ പ്രോത്സാഹിപ്പിക്കാൻ തീർച്ചയായും നമുക്ക് ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് മാത്രമല്ല ഈ സമൂഹത്തിനും അതിന് ഒരു സമൂഹത്തിനും അതിന് അവരും അതിന് അത് ചെയ്യണം അല്ലെങ്കിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്കും ഒരു അവർക്കും ഒരു അവകാശമുണ്ട് അവരുടെ ഉത്തരവാദിത്തമാണ് കലാ കലാകാരന്മാരെ അല്ലെങ്കി കൂടുതല് വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയണത് അതിനെ നമുക്ക് സഹായത്തിനായിട്ട് ഒരുപാട് ആൾക്കാരുകൾ ഉണ്ടാവാറുണ്ട് നധനസഹായ ശ്രോതസ്സുകൾ ഉണ്ടാവാറുണ്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരിൽ നിന്നും നമുക്ക് ധനസഹായ ശ്രോതസ്സുകൾ ഇത് മറ്റെ സർക്കാർ ബാങ്കുകൾ നമുക്ക് ആശ്രയിക്കാനാവുന്നതാണ് ഇപ്പോൾതന്നെ ഒരുപാട് ഏജൻസികൾ മറ്റ് ദാദാതാക്കളൊക്കെ നമുക്ക് കല കലയുടേയും സംസ്കാരത്തിൻ്റെയും വികസനത്തെ പിന്തുണയ്ക്കുന്ന ധനസഹായ ശ്രോതസ്സുകളാണ്